ഉത്സവങ്ങൾക്കായി മറ്റ് മതപരിപാടികൾക്കായിട്ടോ ദൈവ വിഗ്രഹങ്ങള് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കാരണം വിഗ്രഹത്തില് വിശ്വസിക്കുന്നൊരാളല്ല ഞാൻ കാരണം വിഗ്രഹം ദൈവം വിഗ്രഹാന്നൊരിക്കലും ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് അപ്പം വിഗ്രഹത്തിലേക്ക് ഒരിക്കലും ദൈവത്തെ നമുക്ക് അതിലേക്ക് മാത്രം ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല വിഗ്രഹങ്ങള് ദൈവസങ്കൽപ്പങ്ങളൊരുപാട് ഒരുപാട് പേർക്ക് നൽകുന്നുണ്ടെങ്കിലും ദൈവീകമായ കുറെ അനുഭങ്ങള് നൽകുന്നുണ്ടെങ്കിലും ഞാൻ അതിനോട് ഒത്തിരി യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരനുഭവം എൻ്റെ ജീവിതത്തിലൊണ്ടായിട്ടില്ല പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും വിഗ്രഹങ്ങൾക്കൊരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെ കണ്ട് മുട്ടാനും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് വ്യക്തികൾ വഴി വിഗ്രഹങ്ങൾക്കൊരുപാട് പ്രാധാന്യം കൊടുക്കുകയും വിഗ്രഹങ്ങളെ ഭയങ്കര വളരെ വലുതായിട്ട് പൂജിക്കുകയും വിഗ്രഹത്തോട് വളരെ ഭയഭക്തി ബഹുമാനം കാണിക്കുന്ന ഒരുപാട് വ്യക്തികളെ കണ്ട് മുട്ടാനിടയായിട്ടുണ്ട് അതവരുടെ ജീവിതത്തില് ഒരുപാട് സൈക്കോളജിക്കലായിട്ടും മറ്റൊരുപാടാനുഭവങ്ങളവർക്ക് നൽകുന്നുണ്ട് അത് ഭയത്തിൻ്റെ മധ്യത്തിലാണേലും അവരുടെ വിഗ്രഹങ്ങളവരെ സംരക്ഷിക്കുമെന്നുള്ള ചിന്തയും ബോധ്യവും അവർക്ക് പലപ്പോഴുമുണ്ട്